ഗുഡ് മോർണിംഗ് ആ ഞങ്ങളുടെ എൻ്റെ എൻ്റെ അങ്ങളയുടെ ഒരു മാര്യേജ് ഫംഗ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് മറ്റേ കസവിൻറെ സാരികളൊക്കെ ഒന്ന് കാണിച്ചു തരാമോ അതിനെക്കുറിച്ച് അതിൻ്റെ പുതിയ ഇത് പുതിയ വേരിയ ഇത് വരുന്നുണ്ടല്ലോ പ്രിൻറിംഗ് കാര്യങ്ങളൊക്കെ ഈ തൗസൻഡ് എബോവ് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ആണ് നമുക്ക് പ്യുവർ കസവാണോ അതോ ടിഷ്യൂ മോഡൽ ആണോ പ്രിൻറിംഗ് ഒക്കെ വരുന്നതാണോ ഓക്കെ അപ്പോൾ ആ ഓക്കെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ ഓക്കെ ഒരു ഏകദേശം ഒരു ടു തൗസൻഡ് റേഞ്ചിൽ ഉള്ളത് മതി പിന്നെ അത് തന്നെയല്ല ഞങ്ങൾ ഒക്കെ ഫാമിലി എല്ലാം ഒരേപോലെ യൂണിഫോം ആ ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് പീസുകൾ കൂടുതലായിട്ട് വേണ്ടിവരും

ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസിന് ഉള്ളിൽ ഉം ഇന്ന് തന്നെ മേടിക്കുവല്ല ഞങ്ങൾക്ക് അപ്പോൾ റേഞ്ചും കാര്യങ്ങൾ ഒക്കെ അറിയുവാണെങ്കിൽ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തുകൂടി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഫേവറബിൾ ആണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയാണ് ഉം ആ ടിഷ്യൂൻറെ മോ ആ ടിഷ്യൂൻറെ മോഡലിൽ കൃഷ്ണൻറെ എം ഇത് വരുന്നില്ലേ മയിൽ പീലി അല്ലെങ്കിൽ കൃഷ്ണൻറെ ഇതു വരുന്ന മോഡൽ ഉണ്ടല്ലോ ആ ആ ഇത് കുഴപ്പമില്ല ഇതൊന്ന് വെച്ചോളൂ ഞാൻ എന്നിട്ട് ചെന്ന് ഒന്നുംകൂടി വീട്ടിൽ ഉള്ളവരോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നോക്കാം റേഞ്ചും ഇതിൻറെ റേറ്റ് അപ്പോൾ എത്രയാണ് വരുക ഓക്കെ ഓക്കെ ആ ഇനിയിപ്പോൾ പ്രിൻറഡ് ഒക്കെ വരുവാണെങ്കിൽ ഇതിന് റേറ്റ് കുറയും ഈ പ്രിൻറഡ് ഒക്കെ വരില്ലേ നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് പ്രിൻറിംഗ് അങ്ങനെയൊക്കെ പ്രിൻറഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ വീതി ഉള്ള കസവ് ആ മോഡൽ ആ അത് രണ്ടുമൂന്ന് പീസ് അതൊന്ന് കാണിച്ച് കാണിച്ചുതരുമോ രണ്ടുമൂന്ന് കളേഴ്സ് ഒന്ന് കാണിക്കുമോ ഓക്കെ ആ അത് ബ്ലൂ ആണല്ലേ ആ വിത്ത് ബ്ലൗസ് ആണോ അത് ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഒന്ന് മാറ്റിവെച്ചോളൂ കേട്ടോ ആ ബ്ലൂ വരുന്നതും പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണൻറെ ആ പ്രിൻറ് വരുന്നതും ആ ആ രണ്ട് പീസും ഒന്ന് മാറ്റിവെച്ചിട്ട് ഞാൻ നാളെ വന്ന് ഞാൻ ഒന്നുകൂടി വീട്ടിൽ പോയി സംസാരിച്ചിട്ട് ഞാൻ എടുക്കാം കേട്ടോ അപ്പോൾ എത്ര പീസ് ആണ് വേണ്ടതെന്ന് അപ്പോൾ പറയുകയും ചെയ്യാം ആ ആ ഓ ആ ആ ശരി ശരി ആ ഓക്കെ ആ ഡിസ്കൗണ്ട് ചെയ്തുതരുന്നതായിരിക്കും എന്നല്ലേ ഓക്കെ ഓക്കെ ആ അപ്പോൾ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം കേട്ടോ താങ്ക് യു ശരി ആ